ഹലോ ഗുഡ് മോർണിംഗ് സാർ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നെ അതിൻ്റെ ഒരു വിവരം ഒന്നും ഇപ്പം കിട്ടിയില്ല അത് ഞാൻ വീട്ടിൽ അല്ലായിരുന്നുല്ലേ ഇങ്ങൊരു സ്ഥലത്തേക്ക് ടൂറ് വന്നേനു അപ്പോൾ അതപ്പം വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആ ആ നാല് ദിവസത്തിനുള്ളിലോ ക്യാഷ് യു പി ഐയിട്ട് അയച്ച് തന്നാൽ പോരെ സാധനങ്ങൾ ഈ അപ്പുറം ഒരു വീട്ട് പൊടുത്ത് ഞാൻ പറഞ്ഞ് തരാം അതെയാ ആ ആ ആ പൈസ ഞാൻ യു പി ഐ ആയിട്ട് അയച്ച് തരാം അതിന് കുഴപ്പമില്ല നിങ്ങൾ സാധനം അപ്പുറം കുടുംബക്കാർ തന്നെയാണ് അവിടെ കൊടുത്താലും മതി ആ മറ്റന്നാൾ വരുകയാണ് ആ ആ ആ ഞാൻ പറയാം എന്നാടെ കൊടുക്കാൻ വേണ്ടി അല്ല അവിടെന്ന് പറയാം ആ വീട്ടിലേക്ക് പറയാം ആ ഓക്കേ ശരി ശരി സാർ കൊടുത്ത് ഞാൻ യു പി ഐട്ട് അപ്പാട അയച്ച് തരാം കേട്ടോ ശരി എന്നാൽ ഓക്കെ സാർ